കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ ഭാരത മിഷൻ വളരെയേറെ വളരെയേറെ ജനങ്ങൾക്കെല്ലാം വളരെയേറെ പ്രയോജനപ്രദമായ ഒന്നാണ് ഈ ശുചിത്വ ശുചിത്വം നമ്മളുടെ നാടിനും നമ്മളുടെ നമ്മളുടെ വീടിനും നമ്മളുടെ പരിസരത്തിനും എല്ലാം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള ബോധവൽക്കരണം ഈ കേന്ദ്ര സർക്കാരിന് സ്വച്ഛ ഭാരത പദ്ധതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഒരു പരിധി വരെയൊക്കെ സ്വാധിച്ചിട്ടുണ്ട് അതനുസരിച്ച് അതനുസരിച്ച് കുടുംബശ്രീ വഴിയായിട്ടും അതു പോലെ തന്നെ സ്കൂളിലും അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഓരോ സ്ഥലങ്ങളിലും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുചീകരണം ശുചീകരണ പ്രവർത്തികൾ നടത്തുകയും അത് വളരെ വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി ജനങ്ങളിൽ വളരെയേറെ മാറ്റമുളവാക്കിയിട്ടുണ്ട് അത് നാം ശുചീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അത് വിദ്യാർത്ഥികളാണെങ്കിലും അതു പോലെ തന്നെ ഓരോ സമൂഹത്തിൻ്റെ ഓരോ ഓരോ തുറകളിൽ പെട്ട ഓരോ വ്യക്തികളും ഈ ശുചിത്വത്തെ പറ്റിയുള്ള ബോധവാന്മാരായിട്ട് അവർ ഒത്തിരിയേറെ ഇതിനുള്ള പരിശ്രമങ്ങളിലൂടെ പോകുന്നുണ്ട് ഇപ്പം ജനങ്ങൾക്ക് ഓരോ അവബോധം കൊടുക്കുന്നതു കൊണ്ട് ഇപ്പോൾ തുറസ്സായ സ്ഥലം ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്നതും അതുപോലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ജ ജനങ്ങളിൽ നിന്ന് അതൊക്കെ മോശമാണെന്ന് കരുതി അതൊന്നും ഇന്ന് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് ഇതിലൂടെയെല്ലാം ഇതിലൂടെ എല്ലാം ഒരു നാടിനും ഒരു സമൂഹത്തിനും ഒരു ദേശത്തിനും കുടുംബത്തിനും വീടുകൾക്കും എല്ലാം വളരെയേറെ ഒരു ശുചിത്വമാണ് ഇതിലൂടെ എല്ലാം കൈവരിക്കുന്നത് അത് കേന്ദ്ര ഗവണ്മെൻറ് ഈ ഈ പദ്ധതിയിലൂടെ അതു വളരെ ഒരു നേട്ടം കൈവരിക്കാനായിട്ട് സംസ്ഥാനം ഓരോ സംസ്ഥാനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് ഓരോ ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും വളരെയേറെ ഈ ശുചിത്വം ഈ ശുച ഈ സ്വച്ഛ ഭാരത മിഷൻ മിഷൻ കൊണ്ട് ഒത്തിരിയേറെ നേട്ടങ്ങൾ കൈ വരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒക്ടോബർ രണ്ട് ഗാന്ധി ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രത്യേകിച്ച് എല്ലാവരും അതൊരു അതൊരു വലിയൊരു കാര്യമായിട്ട് ഏറ്റെടുത്ത് ഒരു പൊതു പരിപാടിയായിട്ട് അതേറ്റെടുത്ത് ഇങ്ങനെ ഓരോ പൊതു പൊതു സ്ഥലങ്ങളിൽ നിന്ന് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുകയും മാലിന്യം കൊണ്ടു പോ മാലിന്യം കൊണ്ടു പോകുകയും അതവിടെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തിട്ട് ഓരോ പരിസരങ്ങളും വൃത്തിയാക്കിയിട്ടുണ്ട് അതു പോലെ തന്നെ പൊതു പൊതു ഇടങ്ങളെല്ലാം വളരെ വൃത്തിയാക്കിയിട്ടുണ്ട് ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ദിനത്തിൽ അത് ജനങ്ങൾക്ക് ജനങ്ങൾ ഒന്നാകെ കൈ കോർത്ത് ചെയ്ത ഒരു കാര്യമാണ് ഇനി ഇത് ഇങ്ങനെയെല്ലാം കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യാത്ത ചെയ്യാത്ത ഇടങ്ങളും ഉണ്ട് പക്ഷേ ഇതിനുള്ള ബോധവൽക്കരണം കൂടുതലായിട്ട് നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കുടുംബശ്രീ വഴിയായിട്ട് ഞങ്ങളത് പൊതു കാര്യമായിട്ട് ഏറ്റെടുത്ത് ഞങ്ങളത് ചെയ്തിട്ടുണ്ട് അതു പോലെ തന്നെ തൊഴിലുറുപ്പ് പദ്ധതി പ്രകാരം ഒക്കെ ഇവക കാര്യങ്ങളെല്ലാം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ ഓരോ റോഡ് റോഡുകളിലും ഓരോ പൊതു ഇടങ്ങളിലും കിടക്കുന്ന പ്ലാസ്റ്റിക് അതുപോലെയൊക്കെയുള്ള ഓരോ മാലിന്യങ്ങളും ശേഖരിച്ച് അതാത് അത് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടു പോയി അത് അത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് ചെയ്തിട്ടുമുണ്ട്

ഓരോ വീടും പരിസരവും വളരെ ശുചിയായിട്ട് ശുചിയായിട്ട് കൊണ്ടു നടക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകരിലൂടെയൊക്കെ അവർ സർക്കാർ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് അപ്പം അതനുസരിച്ച് അതനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുക ജനങ്ങളതിനെക്കുറിച്ച് ബോധവാന്മാരാക്കിയിട്ട് അവരായിരിക്കുന്നിടങ്ങൾ അവരുടെ വീട് അതുപോ വീട് ചുറ്റുപാടുകൾ പരിസരങ്ങൾ എല്ലാം അവർ വളരെയേറെ നന്നായിട്ടു തന്നെ കൊണ്ടിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുന്ന കാര്യം അതെല്ലാം അതെല്ലാം ജനങ്ങളതൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടിന്നു ചെയ്യുന്നുണ്ട് അതു പോലെ തന്നെ സ്കൂ സ്കൂൾ

സ്കൂളുകളെല്ലാം ശുചിയാക്കുകയും അത് അതെല്ലാം വളരെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ അതെല്ലാം അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മളായിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഈ സ്വച്ഛ ഭാരത മിഷൻ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് നമ്മുടെ നമ്മുടെ നാടിനെ മാലിന്യ വിമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിനെ ഇതിനെയെല്ലാം പൊതുവേ എല്ലാ ജനങ്ങളും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറാണ് പൊതുവെ ചെയ്യാറായിട്ടുണ്ട് ചുരുക്കം ചിലർ മാത്രം ഇതിനൊന്നും ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത ചിലയിടങ്ങളിൽ മാത്രം ഓട്ടും പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ടു പോകുന്നുമുണ്ട് പക്ഷെ ഞങ്ങളായിരിക്കുന്ന ഈ മേഖലകളിലെല്ലാം ഓരോരുത്തരും ഓരോ വ്യക്തികളും ഓരോ വീടും ഓരോ വീട്ടിലും അവരവരായിരിക്കുന്ന ഇടങ്ങൾ വളരെ നന്നായിട്ട് വൃത്തിയായിട്ടും എല്ലാം ജനങ്ങൾ കൊണ്ടു പോകുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെയൊക്കെ ഒത്തിരിയേറെ പകർച്ച വ്യാധികളിൽ നിന്നും ഇങ്ങനെ വീട് വിമുക്തമായിട്ടുണ്ട് നാട് വിമുക്തമായിട്ടുണ്ട് അതു പോലെ തന്നെ കൊതുകുകളെ കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു അപ്പം അതി അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ നാട്ടിലേക്ക് വലിയ പകർച്ച വ്യാധികളൊന്നും വരുന്നില്ല ആളുകൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നു അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വളരെ വളരെയേറെ കാര്യങ്ങളവർ ശ്രദ്ധിക്കുന്നുണ്ട് വളരെ വൃത്തിയായിട്ടും ശുചിത്വത്തോടു കൂടിയാണ് ഇന്ന് ഭക്ഷണം പാകം ചെയ്യുകയും അത് സർവേ ചെയ്തു ഭക്ഷിക്കെ എല്ലാം ചെയ്യുന്നത് ഇതിലൂടെയൊക്കെ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് പരിസരം വളരെ നല്ല രീതിയിൽ ആയിരിക്കുന്നതു കൊണ്ട് രോഗങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധി വരെ രോഗങ്ങളെല്ലാം തടയുവാനായിട്ട് ഒക്കെ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു ഈ ഇങ്ങനെ ഒരു മിഷൻ ഇങ്ങനെ ഇതു വന്നതു കൊണ്ടാണ് ജനങ്ങൾ കൂടുതലായിട്ടും ഇതിനെ കുറിച്ചുള്ള ബോധവാന്മാരായതും ഇതൊക്കെ ഇത്രയേറെ ജനങ്ങളിലേക്ക് എത്തിച്ചതും ജനങ്ങളും കുടുംബമായിട്ടും സമൂഹമായിട്ടും നാട്ടിൽ മൊത്തത്തിലായിട്ടും എല്ലാം വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് സ്വയം ശുചിത്വ ശുചിത്വത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചെല്ലാം അവർ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോയത് ഇതു കൊണ്ടു മാത്രമായിട്ടാണ് അപ്പം എത്ര എന്തൊക്കെയാണെന്ന് എത്രയൊക്കെയാണുള്ളതെന്നു പറഞ്ഞതാണെങ്കിലും നമ്മുടെ സർക്കാർ ഈ വക കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചതു കൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതു കൊണ്ടാണ് ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുക സാധിച്ചത് അപ്പം സർക്കാരുമായിട്ട് ചേർന്ന് നമുക്ക് നമുക്കൊരു സമൂഹമായിട്ട് നിന്ന് ആദ്യം നമ്മുടെ വീട് നമുക്ക് വൃത്തിയുള്ളത് ശു ശുചിത്വമുള്ളതുമാക്കാം പിന്നെ നമ്മൾ വസിക്കുന്ന നമ്മൾ പോകുന്ന നമ്മുടെ നാടും നമ്മളുടെ ദേശവും എല്ലാം നമുക്ക് വളരെ ശുചിത്വമുള്ളതാക്കി നമുക്ക് നമുക്ക് മാറ്റാവുന്നുമുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിന് ഒരു നാടിന് ഒരു ദേശത്തിന് ഒരു സമൂഹത്തിന് സംസ്ഥാനത്തിന് എല്ലാം നമ്മൾ മാതൃ മാതൃകയായിട്ട് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്